മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് പറയുമ്പോൾ എന്തേവച്ചാൽ ഇപ്പം ഈ ഈ ഇപ്പം ഈ റിസൾട്ട് ഇപ്പം വന്നു എസ്എസ്എൽസിൻ്റെ ഫുള്ള് എ പ്ലസ് എ പ്ലസ് കിട്ടിയ കുറെ കുട്ടികൾ മലപ്പുറം ജില്ലയിലാണ് അവർക്ക് പഠിക്കാനുള്ളൊരു സീറ്റ് പ്ലസ്ടുവിന് പഠിക്കാനുള്ളൊരു സീറ്റ് ഇവിടെ ഇല്ല അതുപോലെ അത് മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഒരു പത്ത് പതിനെട്ട് അങ്ങോട്ട് ആ ഭാഗത്തേക്കുള്ള സീറ്റുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ മലപ്പുറം ജില്ല ജില്ലയിലെ ആളുകൾക്ക് മലപ്പുറം ജില്ല ആദ്യത്തെപോലെയല്ല മുമ്പ് ഇവിടെ പല രങ്ങുകൾക്ക് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അങ്ങനത്തെയൊരു ആ ഒരു ഇതിൽന്നൊക്കെ ഇപ്പോഴും അതുണ്ടെങ്കിലും ഒരു വിദേശ്യകാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇവിടത്തെ കുട്ടികൾ ഇപ്പോൾ നല്ലരീതിയിൽ പഠിച്ച് ഫുള്ള് എ പ്ലസ് വാങ്ങി വിദ്യാഭ്യാസത്തിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അവർക്ക് പഠിക്കാനുള്ള സീറ്റിൻ്റെ പ്രശ്നം ഉണ്ട് അതുകൊണ്ടുതന്നെ തൊഴിലിനേയും ആ സംഗതി ബാധിക്കും തൊഴിൽ തൊഴിലൊരു പ്രശ്നമായിട്ട് വരാണ് പഠിക്കാൻ മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട് അതേപോലെ തൊഴിൽ ഭേദമില്ലായ്മയും കൂടുതലുള്ളൊരു ജില്ല തന്നെയാണ് മലപ്പുറം പറയുന്നത് അതേപോലെത്തന്നെ നേത്യത്വത്തിനെക്കുറിച്ച് പറയുമ്പോൾ നേത്യത്വപരമായിട്ട് നല്ല രീതിൽ മുന്നോട്ട് വരേണ്ടതുണ്ട് കുട്ടികൾ കുട്ടികളിൽനിന്ന് തന്നെയാണ് അത് അതിന് നേത്യത്വപരമായിട്ട് ക്ലാ ഇത് കൊടുത്ത് നല്ല ക്ലാസ്സൊക്കെ കൊടുത്ത് റെഡി ആക്കേണ്ടതുണ്ട്